ഇത് ടോപ് ഫോമ് റെസ്റ്റോറന്റല്ലേ ഞാനേ അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഗീ റൈസും മീറ്റ് കറിയും ഉണ്ടോന്നൊക്കെ അറിയാൻ വിളിച്ചതായിരുന്നു ആ നൈറ്റിൽ നൈറ്റിൽ നമുക്ക് കുറച്ച് ആ കുറച്ച് കൂടുതൽ വേണം നമുക്കൊരു പത്ത് പതിനഞ്ച് പേര് നമ്മുടെ വീട്ടിലേക്ക് വിരുന്നുകാരായിട്ട് വരുന്നുണ്ട് അപ്പം അവർക്ക് വേണ്ടീട്ടാരുന്നു ഉണ്ടാവൂലേ ഇല്ലല്ലേ ആ അതെ അതെ അതെ പിന്നെ വേറെ എന്തൊക്കെയാ അവിടെ സ്പെഷ്യലായിട്ടുള്ളത് പ്രോൺസ് ബിരിയാണിയല്ലേ ആ ആ ഹ ഹ ആ ഉണ്ടല്ലേ ആ ഓക്കെ ആ ഉണ്ടാക്കിട്ടില്ല അല്ലെങ്കിൽ കുഴപ്പമില്ല എന്തായാലും നിങ്ങൾ എന്തായാലും ഗീ റൈസും മീറ്റ് കറിയും പിന്നയിൻ്റെ ഒപ്പം മറ്റേ പ്രോൺസ് ബിരിയാണി ഒരൂ പത്തെണ്ണം പത്ത് പ്രോൺസ് ബിരിയാണി ആ പിന്നേ കക്ക എറച്ചിയില്ലേ കക്കയില്ലേ ടൈമ് ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴ്ത്തേക്കും എത്തിച്ചാൽ മതി ഏകദേശമൊരു അഞ്ച് അഞ്ചരയൊക്കെ ആകുമ്പോഴ്ത്തേക്കും കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഇല്ലാ നിങ്ങൾ കൊണ്ടു വരുവാണേൽ അതായിരിക്കും നല്ലത് കാരണം നമ്മൾ അവിടെ വണ്ടി വിളിച്ച് വരുമ്പം ഡെലിവെറി ചാർജ് ഞങ്ങൾ തരാം കുഴപ്പമില്ല ആ അത് കുഴപ്പമില്ല അത് നമ്മൾ പേ ചെയ്തോളാം എൺപത് രൂപയല്ലേ അത് കുഴപ്പമില്ല അത് നമ്മൾ പേ ചെയ്തോളാം കുഴപ്പമൊന്നും ഇല്ലാ ഫുഡ് നല്ല ഫുഡ് ആയിരിക്കൂലേ ആണോ ഫുഡിന് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കുഴപ്പമില്ലല്ലേ ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ലൊക്കേഷനും ഓക്കെ ഓക്കെ ഓക്കെ ഞാനയച്ച് തന്നേക്കാം നിങ്ങളതിൻ്റെ ഇതൊന്ന് എന്തൊക്കെയാണുള്ളത് എന്ന് ഡീറ്റെയ്ൽസൊന്ന് ഇട്ട് തന്നേര് കാരണം അതിനകത്ത് വേണ്ടത് ഞാൻ മെനു ഒന്ന് ഇട്ട് തന്നേര് ഓക്കെ ഓക്കെ ഓ ഓക്കെ ഓക്കെ